ഇന്ത്യയുടെ ചരിത്രമെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ചരിത്രം വളരെ മനോഹരമായതും വളരെ കഷ്ടപ്പെട്ടതുമാണ് നമ്മളെ ഇന്ത്യയ്ക്ക് വേണ്ടി പല നേതാക്കളും പോരാടിയിട്ടുണ്ട് ആ ബ്രിട്ടീഷുകാരിൽ നിന്നും ഞങ്ങളെ ഇന്ത്യ വളരേ കഷ്ടപ്പെട്ടാണ് തിരിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ന് നാം അറിയുന്ന ഈ രാജ്യത്തെ എന്ന് പറയുന്നത് ഇന്ന് നാം അറിയുന്നത് വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യ പണ്ട് നമ്മുടെ നേതാക്കൾ രാ രാജ്യത്തിന് വേണ്ടി പോരാടുകയും നമുക്ക് നമ്മുടെ രാജ്യം തിരിച്ചെടുക്കുകയും ചെയ്ത ആ നിമിഷം അത് വളരെ മനോഹരമായതും വളരെ കഷ്ടപ്പെട്ടതുമാണ് ഇന്ന് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാനും നിൽക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ നേതാക്കളെ കഴിവുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കൾ ഇഷ്ടപ്പെട്ട നേതാ സ്വാതന്ത്ര്യ സമരത്തിലെ എടുത്തു പറയത്തക്ക ചില നേതാക്കൾ ആണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ അല്ല മഹാത്മാഗാണിയാ മഹാത്മാഗാന്ധിജി ജവർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് കിത്തൂറാണി ചെന്നമ്മ ഇവരൊക്കെ പറയത്തക്ക എടുത്തു പറയത്തക്ക ചില നേതാക്കളുടെ പേരുകളാണ്